ആളുകൾക്ക് കൂടുതലും എൻ്റർടെയ്നിംഗായി തോന്നുന്നത് നെരത്തെ വീഡിയോകൾ ആണ് എല്ലാവരും ഒരേപോലത്തെ വസ്ത്രങ്ങളും ഒരേ മേക്കപ്പും ഒരേ കളറിലുള്ള ഡ്രെസ്സും ആഭരണങ്ങളും ഓക്കെയാവുമ്പോൾ കാണുന്ന കാണികൾക്കതൊരു കൗതുകം തന്നെയാണ് എന്താണെന്നു വെച്ചാൽ എല്ലാവരും ഒരേപോലെ ഡാൻസ് ചെയ്യുന്നത് ഒര് ഒരു നല്ലൊരു പാട്ട് ഒരേപോലെ ഡാൻസ് ഓരോ മുദ്രകൾ വെച്ച് ചെയ്യുന്നതും ഓരോ ഓരോ സ്റ്റെപ്പുകൾ ഒരേപോലെ കളിക്കുന്നതും ഒക്കെ കാണാൻ കാണികൾക്കൊരു കൗതുകം തന്നെയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയകൾ വൈറലാകുന്നത് ആ നൃത്ത വീഡിയോകൾ ഇത്ര കൂടുതൽ വൈറലാകാനുള്ള കാര്യങ്ങൾ പിന്നെ ഓരോ വീഡിയോകൾ കണ്ടാണല്ലോ ഓരോരുത്തരെ നമ്മൾ ഭാവി ഭാവിയിലാരാകുന്നു എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുള്ളത് ഓരോ വീഡിയോകളിലൂടെയും ഓരോ കുട്ടികളും വളർന്നു വരുന്നു ഓരോ സ്ഥലങ്ങളിലേക്ക് ഷെയർ ചെയ്തും അങ്ങനെ ഡയറക്ടർമാരിലേക്കും വലിയ വലിയ ആളുകളിലേക്കെത്തി അവരുടെ കഴിവുകളെത്തുമ്പോൾ വലിയ നിലയിലേക്കെത്തുന്നു കുട്ടികൾ